എനിക്ക് ബാങ്കില് എൻ്റെ മക്കളെയൊക്കെ വിടണം എന്ന് വലിയ ആഗ്രഹമില്ല കാരണം എന്നാന്നോ അവിടെ ഭയങ്കര പണിയുണ്ട് കണക്കാണ് മെയിൻ വിഷയം അവിടെ ഈ മാക്സ് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അവിടെ ചെന്നാൽ നല്ലൊരു ജോലി ചെയ്യാൻ പറ്റും നല്ല തല പുകയുന്ന പണികള് മറ്റുള്ള ജോലികൾക്കൊന്നും ഇത്ര കഷ്ടപ്പാടില്ല അതുകൊണ്ട് എനിക്ക് ബാങ്കിലുള്ള ജോലിയില് പിള്ളേരെ വിടാന് വലിയ താല്പര്യം ഇല്ല മറ്റെന്തു തൊഴിലിനു പോയാലും അവിടെ പോവാൻ വലിയ ഇതില്ല പിന്നെ ഒരു മാനേജറെ കണ്ടാല് അവിടെ പോയ് ഒപ്പ് പോകണം ഇവിടെ പോകണം അവരെ ജോലി കൃത്യനിഷ്ഠയാക്കി ചെയ്യണം കൃത്യസമയത്ത് ഒൻപത് മണീ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ബാങ്കിൻ്റെ പിന്നെ ബാങ്ക് ഓഫീസ് തുറക്കും പിന്നെ അവര് പിന്നെ മിനിറ്റ്സ് ബുക്കെല്ലാം എടുത്ത് കൊണ്ടുവന്ന് വെക്കും ഇതെല്ലാം ചെയ്യണം ഭയങ്കര അധ്വാനമുള്ള ജോലിയാണ് കാര്യം ഒരു ലക്ഷം രൂപാന്നോ രണ്ട് ലക്ഷം രൂപയോ ബാങ്കില് ശമ്പളം ഉണ്ടാവും പക്ഷേ ആ ജോലി എനിക്ക് വലിയ താൽപര്യമൊന്നും ഇല്ല പിള്ളേരോടെ വേറെ എന്ത് പണിക്കും മറ്റുള്ള ജോലികളിലേക്കാണ് എനിക്ക് താല്പര്യം നിൽക്കുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ പഠിക്കുന്ന മക്കള് നല്ല ബുദ്ധിയും വേണം കണക്കെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് ഇപ്പഴ് ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സംവിധാനം മാത്രമേയുള്ളു കമ്പ്യൂട്ടറ് ചെറുപ്പം മുതല് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ബാങ്കിൽ കയറി ശമ്പളം പറ്റാൻ സാധിക്കുള്ളൂ എനിക്ക് അത്രെയേ പറയാനുള്ളൂ